മത്സ്യബന്ധനം എന്നു പറയുന്നത് ഏറ്റവും രസകരമായ ഒരു ജോലി തന്നെയാണ് കാരണം എന്നു വച്ചാൽ കടലിൽ പോവാം നമ്മുടെ ആഴക്കടലിലേയ്ക്ക് പോവാം എന്നിട്ട് നമ്മൾക്ക് അവിടെനിന്ന് മീനുകളെയൊക്കെ പിടിച്ചിട്ട് വരാം പിന്നെ മറ്റു തൊഴിലിനെ അപേക്ഷിച്ച് മത്സ്യബന്ധനം രസകരമായൊരു കാര്യമാവാൻ കാരണം തന്നെ ഈ നമുക്ക് കടലിൻ്റുള്ളിലേയ്ക്ക് പോവാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വേറെ തൊഴിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെൻ്റ് ജോലി തന്നെ എടുക്കാം എന്തുന്നാണ് ഗവൺമെൻ്റ് ജോലിയ്ക്ക് അവിടെ ഇരിക്കുന്നു ഒരേ ഇരുത്തം ഇരിക്കുന്നു രാവിലെ പോകുന്നു വൈകുന്നേരം വരെ ഇരിക്കുന്നു ടെൻഷനായി വർക്ക് ചെയ്യുന്നു അതൊക്കെ മത്സ്യബന്ധനം പറയുമ്പോൾ എന്താ ടെൻഷനൊക്കെ ഉണ്ടാവും നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും ടെൻഷൻ ഇല്ലാത്ത ഒരു ജോലിയില്ല പക്ഷെ നമുക്ക് സ്വതന്ത്രമായി പോകാം ആരെയും പേടിക്കേണ്ട നമ്മൾ പോകുന്നു പോയിട്ട് മീനുകളെ പിടിക്കുന്നു വരുന്നു അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളു അപ്പം ആരും ബോസായിട്ടോ ബോസാണ് ജീവനക്കാരനാണ് എന്നുള്ളൊരു വ്യത്യാസമൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് അതൊരു രസകരമായ ജോലി തന്നെയാണ് മത്സ്യബന്ധനം എന്നു പറയുന്നത്